ദേശീയ തലത്തിൽ ഈ പ്രദേശത്ത് നടത്താറുള്ള ടൂർണമെൻറ്റുകളിൽ ഒന്നാണ് ഐ എസ് എൽ അഥവാ ഇന്ത്യൻ സൂപ്പർ ലീഗ് കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇന്റര് ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുന്നത് ഇത് വളരെ ഇതിന് വളരെ മികച്ച് നിൽക്കുന്ന ഒരു കായിക രംഗമാണ് കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആരാധകർ ഉള്ള ഒരു കായിക ഇനമാണ് ഫുട്ബോൾ അപ്പോൾ അത്തരത്തിൽ ഉള്ളൊരു മത്സരം നമ്മുടെ പ്രദേശത്ത് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് കാണികളെയും ലോകമെമ്പാടും ഉള്ള ആൾക്കാരെയും വളരെ അധികം ആകർഷിക്കാറും ഉണ്ട് ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാണ് അതുപോലെ തന്നെ യുവതലമുറയേം കുട്ടി കുട്ടികളെയും വളരെ അധികം വളരെ അധികം മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് അല്ലെങ്കിൽ അവരെ ആകർഷിക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് പ്രേരണ നൽകുന്നതും അവരെ പ്രേരിപ്പിക്കുന്നതും ആയൊരു മേഖലയാണ് ഈ പറയുന്ന ഐ എസ് എൽ അഥവാ ഇന്ത്യൻ സൂപ്പർ ലീഗ്